ഹലോ കുഞ്ഞുമോനെ കസ്റ്റമർ കെയറിൽ ഉണ്ടല്ലോ അല്ലേ നാളെ എനിക്ക് പത്തിരുപത് പേരുള്ള ഇരുപത് പേരുള്ള ഒരു പാർട്ടി ഞാൻ നടത്താനായിട്ടുദ്ദേശിക്കുന്നുണ്ട് അപ്പം നമുക്ക് എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വേണം അപ്പം അതു കുട്ടികളുമൊക്കെയുള്ളതാണ് അപ്പം ജാ അതിന് ഒപ്പിച്ച് എരിവ് കുറവുള്ളതു വേണം ഡയബറ്റിക്ക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള പല പല ആളുകളുണ്ട് കൊളസ്ട്രോൾകാർ ഉള്ളവരുണ്ട് അപ്പം അവരെയൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് എരിവു കുറച്ചു മതി അതുപോലെ തന്നെ വറക്കുമ്പോഴത്തേക്ക് വറ വറുത്ത നല്ല പോലെ സ്പൈസ്സി ആയ ആയിരിക്കണം കൂടുതൽ എണ്ണ ചേർക്കാത്ത വിധത്തിലൊ ഉപ്പ് കുറവുള്ളവരുണ്ട് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കയച്ചു തരാം വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും ഈ ഇപ്പം ഫോണിൽ വാട്സ്പ്പിൽക്കൂടി അയച്ചു തരാം ഇതു ആപ്പിൽ കൂടി എല്ലാം നിങ്ങൾക്ക് അയക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് വെബ് സൈറ്റിലോ ആപ്പിലോ വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് അയച്ചു തന്നോളാവുന്നതാണ് അപ്പം അതനുസരിച്ച് അതു വേണ്ട സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ടും നീറ്റായിട്ടും നിങ്ങൾക്കു ചെയ്തു തരാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് വിളിക്കുന്നത് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും അതിൽ ഏതിലൊക്കെ എന്തൊക്കെ വേണം ചേരുവ കുറവ് വേണ്ടത് ഏതൊക്കെയാണ് എരിവു കുറയേണ്ടത് ഏതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരു ഈ വെബ്സൈറ്റ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ ഇതു ചെയ്തു തരുന്നതായിരിക്കും അതു വേണ്ട പോലെയൊന്നു ചെയ്യുക കേട്ടോ കൃത്യമായിട്ടത് ആ സമയത്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ എരിവ് ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നു ശ്രദ്ധിക്കുക വേണ്ടതും വേണ്ടാത്തതും കുറവും വേണ്ടതിൻ്റെ എത്ര പ്ലേറ്റ് വേണം എന്നുള്ള വിവരങ്ങളൊക്കെ ഞാനറിയിക്കാം ഇക്കാര്യത്തിൽ വേണ്ടത് ചെയ്യുക